അതേ തീർച്ചയായും മുദ്രാവാക്യങ്ങളും പാട്ട് പാടുകയും പാട്ട് പാടണം എന്നില്ലേ കടലിനക്കരെ പോണോരേ അങ്ങനെ ഒക്കെ പാടുന്നത് ഒക്കെ പാട്ട് ഒക്കെ കേൾക്കുമ്പം അതൊക്കെ എനിക്കിട്ട് നല്ല ഒരു എന്താ പറയാ നല്ല സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു അവരുടെ ഊര്ജ്ജവും അതൊക്കെ കാണുമ്പോൾ എല്ലാ നല്ല ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു ഇതായിട്ട് കാണലുണ്ട് അത് തീർച്ചയായും കൂടുതലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓരോരോ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ളൊരു ആഘോഷങ്ങളും അതും അവരെ കാര്യങ്ങളും അവരുടെ ചുറ്റുവട്ടവും ആ ഒരു എൻവിയോൺമെന്റ് അതാണ് പിന്നെ കടലിൽ പോയി അതെടുത്ത് കൊണ്ടു വരുന്ന് അതൊക്കെ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസായിരിക്ക വളരെ ആസ്വദിച്ച് ചെയ്യേണ്ടത് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു എല്ലാം കൊണ്ടും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഓരോരോ പാട്ടുകളും പാടി ഓരോ കഥകള് പറഞ്ഞ് കഥ പണ്ടത്തെ ഒരു പണ്ടത്തെ കഥ പറഞ്ഞ് ഇപ്പം ഉള്ളവർ ഇപ്പോഴത്തെ കഥ പറഞ്ഞ് എല്ലാം കൂടെ മിക്സായി അവരോരോ പാട്ട് പാടി ഇവരോരോ പാട്ട് പാടി എല്ലാം അവർ പിന്നെ ഈ മീനിട്ട് വലയിട്ട് വല കോരുമ്പോൾ ഓരോ പാട്ട് അല്ലെങ്കിൽ ഓരോ മുദ്രാവാക്ക്യങ്ങൾ അതെല്ലാം ഇന്ന് വിളിക്കുമ്പോൾ ഒരു എന്താ പറയാ ഗൂസ്പോംസ് വരുന്നു ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും ഓരോ ഭാഷയിൽ ഓരോരോ പാട്ട് മീൻസ് ഓരോ സ്ലാംഗിലോരോരോ പാട്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്